അതെ അതെ പറഞ്ഞോളു ആ പറഞ്ഞോളു ആ എങ്ങോട്ടായിരുന്നു നോക്കുന്നത് ഗുഡ് കേരളയിലേക്കുള്ളതാണ് ട്രിപ്പ് കാര്യങ്ങൾ അല്ലേ ആ നമുക്ക് വരുന്നത് ഇപ്പോൾ അ ആ എത്ര പേരുണ്ട് പാക്കേജിൽ വരുന്നത് എത്ര പേരാണ് കാര്യങ്ങൾ വരുന്നത് അഞ്ച് പേർ അപ്പോൾ ചെറിയ നമുക്ക് ഒക്കെ ദിവസങ്ങൾ വണ്ടി തന്നാൽ മതിയാരിക്കുമല്ലോ അല്ലേ ഡ്രൈവർ കാര്യങ്ങൾ ആവശ്യങ്ങൾ വരുന്നുണ്ടോ ഓക്കെ ഓക്കെ നമുക്കങ്ങനെയാണെങ്കിൽ പാക്കേജായിട്ട് ചെയ്യാം നമ്മുടെ സൈഡിൽ നിന്ന് നിന്ന് തന്നെ ആൾ കാര്യങ്ങൾ വരുന്നുണ്ടാകും പിന്നെ നമുക്ക് വരുമ്പം നമുക്ക് ഫുൾ പാക്കേജായിട്ട് വരുന്നുണ്ട് അത് അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പം ഹോട്ടലിൻ്റെ ബുക്കിങ്ങ് കാര്യങ്ങളാണെങ്കിലും അത്പോലെ ഫുഡ്ഡ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സജഷൻ ചെയ്യുന്ന പ്രോപ്പർട്ടീസിൽ നിന്ന് വരുന്നയുണ്ട് അങ്ങനത്തെ പാക്കേജ് നോക്കുന്നുണ്ടോ അതോ അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ പ്രിഫർ ചെയ്യുന്ന ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് തരേണ്ട അങ്ങനെയാണോ വേണ്ടത് ആ ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പതിനഞ്ച് ദിവസത്തേക്കുള്ള പാക്കേജ് അല്ലെ വേണ്ടത് ഇപ്പം നമുക്ക് പതിനഞ്ച് ദിവസത്തേക്കാകുമ്പം നമുക്കൊരു പെർ പെർ ഡേ വരുന്നത് ഒരു ഒരു പെർ ഹെഡ്ഡിന് ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് നമുക്ക് വെ ചാർജ് ചെയ്ത് വരുന്നത് ഇല്ലാ നമുക്ക് ഫുഡ് ആൻഡ് ആക്കോമഡേഷനും എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ഏകദേശമൊരു മൂന്ന് നാല് അഞ്ച് രൂപേൻ്റടുത്ത് വരും ഒരാൾക്ക് ആ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോ നൽകുന്ന പ്രൊവൈഡ് ചെയ്യുന്ന റൂംസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പല കാറ്റഗറിയിലും പ്രോപ്പർട്ടിയിലും വരുന്ന റൂം കാര്യങ്ങളാണ് തരുന്നത് പിന്നെ ഫുഡ്ഡ് കാര്യങ്ങളാണെങ്കിലും എല്ലാം നോൺ കാര്യങ്ങളും എല്ലാ അടങ്ങുന്ന രീതിയിലുള്ള ഫുഡ്ഡ് അടക്കം ഉള്ള എല്ലാ പാക്കേജും ബേ ബേസിസിലാണ് നമ്മൾ ചെയ്ത് വരുന്നത് പിന്നെ ട്രാവലും കാര്യങ്ങളൊക്കെ വരുന്നതെന്നു പറയുമ്പോൾ നമ്മൾ നൽകുന്നത് വണ്ടിക്ക് ഫുൾ ഏസി ആയിട്ടുള്ള വണ്ടിയും കാര്യങ്ങളുമൊക്കെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഹാ നല്ല വണ്ടിയും കാര്യങ്ങളുമൊക്കെ ആയിരിക്കും പിന്നെ നമുക്ക് വരുന്നാ ആ ആ നമുക്കത് നമുക്കൊക്കെ അത് വിഷയമെന്ന് പറയുമ്പം നമുക്കത് ലാസ്റ്റ് ഡേയിലെന്ന് പറയുമ്പോൾ നമ്മൾ പാക്കേജ് കാര്യങ്ങൾ വരുന്നത് ഓരോ സ്ഥലങ്ങൾ വരുന്നുണ്ട് അപ്പം നമുക്ക് ലാസ്റ്റ് ഡേയിൽ അവിടുത്തെ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഡി ജെ പാർട്ടി കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റത്തുള്ളു കാരണം നമുക്ക് ഈ ചെറിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്കിത്രയും പാക്കേജ് കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഈവെൻറ്റ്സ് കാര്യങ്ങൾ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് തരാൻ പറ്റും അപ്പം നമുക്ക് ഈ എമൗണ്ട്സ് കാര്യങ്ങൾ വരുന്നത് ഒരു എസ്റ്റിമേറ്റ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കേകദേശം പാക്കേജ് നോക്കണം നിങ്ങൾക്ക് പോകാൻ ഇൻ്ററസ്റ്റുള്ള ഏതൊക്കെ സ്ഥലങ്ങളാണോ ആ സ്ഥലങ്ങൾ മൊത്തമൊന്ന് ലിസ്റ്റ് ചെയ്തിട്ട് പിന്നവിടത്തെ ഓരോ സ്ഥലങ്ങളിലും നമുക്ക് ഫുഡ്ഡ് കാര്യങ്ങളൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും അപ്പം നമുക്ക് അതൊക്കെ മൊത്തം ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളു അപ്പം നമുക്ക് മാക്സിമം ചെയ്യുന്നതു പോലെ ചെയ്യാൻ പറ്റും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഏത് സൈഡിലേക്കാണോ ഇൻ്ററെസ്റ്റ് കാര്യങ്ങൾ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് തരാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് നമുക്കൊരു സൈഡ് മൊത്തം കവർ ചെയ്ത് പോകുന്ന രീതിയിൽ ചെയ്ത് തരാം പിന്നെ പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് മാക്സിമം രീതി നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലും സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം നിങ്ങൾക്ക് അതിലേതെല്ലാം ഓക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് കാര്യങ്ങളെന്നുള്ളത് നിങ്ങളൊന്ന് നേരിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് സ്പോട്ട് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു തരാം എന്നിട്ട് നമുക്ക് ആ ഒരു പാക്കേജ് കാര്യങ്ങൾ എങ്ങനെയാണ് അതിനനുസരിച്ച് വരുന്നത് എന്നുള്ളത് അന്നേരം ഡീറ്റേയ്ൽഡ് ആയിട്ട് പറഞ്ഞു തരാം അത് നമുക്ക് ഏകദേശം ഇപ്പൊരു നല്ല എമൗണ്ട് വരും എങ്ങനെ പോയാലും എറൗണ്ട് ഇപ്പൊരു പത്തിരുപത് രൂപേൻ്റെ മേലെ പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓ ഈ ഇത്രയും ദിവസത്തേയ്ക്ക് പതിനഞ്ച് ദിവസത്തേയ്ക്കാകുമ്പോൾ വണ്ടിക്ക് തന്നെയൊരു നല്ല എമൗണ്ട് വരുന്നുണ്ടാകും കാരണം ആ പിന്നെ

ആ ഓക്കെ ഓക്കെ പാക്കേജ് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളപ്പം നോക്കുന്നുള്ളു എമൗണ്ട് കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കുന്നില്ല അല്ലേ അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം നല്ല രീതിയിൽ തന്നെ നമുക്ക് അതായത് ഇതിപ്പം സ്ഥലങ്ങളാണെങ്കിലും ഹോട്ടൽസ് ആണെങ്കിലും നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ മാക്സിമം നല്ല രീതിയിൽത്തന്നെ നമുക്ക് ചെയ്ത് തരാൻ പറ്റുന്നതാണ് പിന്നതിനനുസരിച്ച് പാക്കേജും കാര്യങ്ങളുമൊക്കെ സെറ്റ് ചെയ്ത് തരാവുന്നതാണ് അപ്പം നിങ്ങൾ അടുത്ത ദിവസം ഒന്നിങ്ങോട്ട് വന്നാൽ മതി ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ